മലയാള ഭാഷയെക്കുറിച്ചു പറയുകയാണെങ്കിൽ മലയാള ഭാഷ എന്നു പറഞ്ഞാൽ എല്ലാരും അറിയപ്പെടുന്ന ഭാഷയാണ് അപ്പം ഇന്ത്യയിലേക്ക് വരികയാണ് ഒരുപാട് ഭാഷകളുണ്ട് നമുക്ക് അറിയാം സംസ്കൃതം സംസ്കൃതം നമ്മൾ ഫസ്റ്റ് കേരളത്തിലണ്ടായിരുന്നു കാരണം എന്നു വച്ചാൽ ദ്രാവിഡിയൻസാണ് ഫസ്റ്റ് വന്നത് ഓരോരു ഭാഷയാണ് സംസ്കൃതങ്ങൾ പിന്നെ അത് പിന്നെ ആര് കൊണ്ടുപോയി അല്ല അവരുടെ ഭാഷ ദ്രാവിഡ്യൻ ഭാഷയായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഭാഷയുടെ സംസ്കൃതം പിന്നെ സംസ്കൃതമൊക്കെ അങ്ങനെ അങ്ങനെ സംസ്കൃതത്തിൻ്റെയൊക്കെ ഒരു വിട്ട തന്നെയാണ് മലയാളം വന്നതിൽ ഈ മലയാള മലയാളം ഈ മലയാളം ബന്ധപ്പെട്ടുണ്ട് മലയാള രാജ്യമുണ്ട് മലയാള രാജ്യം വന്നൽ മതി നമ്മൾക്ക് എല്ലാവർക്കും അറിയാണ് നമ്മുടെ എന്ത്യ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് രാജി അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു രാജ്യമാണ് മലയാള രാജ്യ ബ്രിട്ടീഷ്ക്കർക്ക് എതിരേ പോരാടാാൻ മാപ്പിളക്കാരോടൊപ്പം ഈ വെള്ളുുവനാട് ചേർന്ന് കുറച്ചു പ്രദേശങ്ങൾ മലയാള രാജ്യം എന്ന അറിയപ്പെട്ടിരുന്നു ഒരു രാജ്യമായിട്ട് തന്നെ ബ്രിട്ടീഷ്കർക്ക് ഐറ്റമാണ് അപ്പോൾ നമ്മൾ മലയാള ഭാഷ പറഞ്ഞു ഭാഷെക്കുറിച്ചു നമ്മൾ പറന്ന ഒരുപാട് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പല പദപ്രയോഗങ്ങളുണ്ടാവും ഈ പദപ്രയോഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ എന്തായിരിക്കുംള് സാധാരണ ഉപയോഗിച്ചു പോകുന്നതായിും അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ട്രണ്ടെന്ന് സോഷ്യൽ മീഡിയ അപ്പം ഈ ഒരുപട് സിനിമകൾ കാണുന്ന ഒരുപാ ട്രൻഡുകളൊക്കെ നമുക്ക് എന്താ ഈ പദ പ്രയോഗങ്ങളൊക്കെ നമുക്കുണ്ട് ഉദഹരണത്തിന് ഇപ്പം അടുത്ത് ആവേശം എന്നുള്ള പടം വന്നു അപ്പം അതിൽ എട മോനേ അനലോന്നന്ന് അപ്പം ആ എട മോനല്ലം വിളിക്കാതെ മടിക്കാതെ എല്ലായിടത്തും പിന്നെത് ട്രൻഡ് ആകും അപ്പ ഈ ഇ പറഞ്ഞ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഒരു സംഗതി കിട്ടിയാൽ പിന്നെ അത് തന്നെ ന്നെ ആയിരിക്കുന്നുണ്ട് അതിന് മലയാള ഭാഷയിൽ ഓരോ നോക്കുകയാണെങ്കിൽ നമുക്കെന്താണ് ഈ രമണ രമണനറിയാം ഏ പഞ്ചാബി ഹൗസിലെ രമണൻ അപ്പം രമണൻ്റെ ഒരുപാട് വാക്കുകളൊക്കെ പിടിച്ചു കൊണ്ട് അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് പയ കാല കോമഡികള നിന്ന് ഒരുപാട് വാക്കുകൾ അതുപോലെതന്നെ മോസ്റ്റായിട്ട് ലാലേട്ടൻ്റെ മമ്മൂട്ടിൻ്റെ ലാലേട്ടൻ്റെ പഞ്ച് ഡയലോഗുകളൊക്കെ പിടിച്ചു കൊണ്ട് ഒരുപാട് വാക്കുകളൊക്കെ നമ്മളെ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാററുണ്ട് അതുപോലെ തന്നെ നമ്മള ഇതിേക്ക് വരികയാണെങ്കില് നമ്മളെ ഈ ഒരി ഒരു ജനറേഷൻ പൃത്യേകത എന്നു പറഞ്ഞാൽ ഈ മോശപ്പെട്ട വാക്കുകുകളക്കെ ഈ പദപ്രയോഗങ്ങൾ പറഞ്ഞാൽ മോശപ്പെട്ട വാക്കുൾ ഒരുപാട് ഉപയോഗിക്കലുണ്ട് മലയാള ഭാഷയിലേക്ക് അബിസംബോധം ചെയ്യുക തന്നെ ആ ബോഷപ്പെട്ട അതൊരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പോലായി മാറി അതൊരു എൻ്റെ പ്രായത്തിൽ അത് അതൊരു വളരെ മോശപ്പെട്ട സംഗതിയാണ് ഈ നമുക്ക് ആർക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ഇതുണ്ട് വാക്കുകളൊക്കെ ആ വാക്കുകളെല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത അതാണ് വാക്കുകളൊന്നും ഇവിടെ സൂചിപ്പിക്കത്ത സൂചിപ്പിക്കാത്ത അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കവിതകളിൽ പാട്ടുകളിൽ അങ്ങനെയൊക്കെയായിട്ട് ആയിട്ട് ഒരുപാട് പലപ്രയോഗങ്ങള് നമ്മള് പ്രയോഗിക്കാറുണ്ട് നമ്മള എന്ന് പറഞ്ഞ നമ്മള് സാധാരണയ വിധ സുഖമാണോ ഒക്കെ സുഖമാമാണ് എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് എല്ലാവരും സുഖമാണ് പിന്നീട് ഒരു സാഹിത്യ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അലേറം പുസ്തകത്ത് വായിച്ചട്ടായിരിക്കും അത് നമ്മൾ അങ്ങ് എന്തായിരിക്കും ഞമ്മളെവിടേക്കെയാണ് പോണ അവിടക്ക അത് പ്രയോഗിക്കു

ആ പറഞ്ഞു കൊടുക്കലിലൂടെ നമ്മൾ അത് ട്രെൻഡ ആക്കി എടുക്കുന്നതിലൂടെ നമുക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്തകണം എന്നു വച്ചാൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അത് നമുക്ക് അവിടെ നി ന്ന് ഉപയോഗിക്കാൻ സാധിക്കും അവിടെ എന്ന് നല്ല യോജിക്കാൻ സ്ഥലത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലാതെ യോജിക്കാത്ത സ്ഥലങ്ങള്ത് ഉദാഹരണം ഇന്ത് ഈ കടങ്കഥകളൊക്കെ ഒരുപാട് കടങ്കഥകളാണ് അതൊക്കെ നമുക്ക് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലുള്ളത് ഭയങ്കര കാര്യാണ്